ടി വി ടിവിയിലും പിന്നെ സിനിമയിലെല്ലാം കണ്ടിട്ടാണ് എല്ലാവരുമിപ്പോൾ ഡ്രെസ്സൊക്കെ അടിക്കുന്നത് പക്ഷെ ഏറ്റവും നല്ല ഡ്രസ്സ് എന്ന് പറയുമ്പോൾ സാരിയാണ് സാരിയുടുത്ത് നമ്മളിറങ്ങിയാൽ അതൊരു ഐശ്വര്യം തന്നെയാണ് ഇപ്പോഴത്തെ ആൾക്കാർക്ക് പിന്നെ സാരിയൊന്നും ആവശ്യമില്ല പകുതി പാൻറ്റും പകുതി ബ്ലൗസും പോലത്തെ ഡ്രസ്സ് ഒക്കെയെല്ലാവരും ഇടുന്നത് എല്ലാവർക്കും അതൊക്കെയേ ആവശ്യമുള്ളു അതുകൊണ്ട് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ആൾക്കാർ തന്നെ ആരും തന്നെ സാരിയൊന്നും ഉടുക്കലില്ല എൻ്റെയിഷ്ടമൊക്കെ ഏറ്റവും നല്ലയിഷ്ടം സാരിയാണ് അത് ഉടുത്തിട്ട് ഇറങ്ങുകയാണെകിൽ അതിൻ്റെ ഒരു ഐശ്വര്യം വേറെ തന്നെയാ അതിപ്പോൾ ആർക്കും അതാവശ്യമില്ല എല്ലാവർക്കും പേൻറ്റും ജീൻസിൻ്റെ പേൻറ് അങ്ങനെയുള്ള ഷർട്ട് പകുതിയുള്ള ഉടുപ്പ് അങ്ങനെയുള്ളതാണ് എല്ലാവർക്കും ഇഷ്ടം അതുമിട്ടിട്ടാണ് എല്ലാവരും പുറത്തിറങ്ങി പോകുന്നത് അതു കണ്ടാൽ തന്നെ നമുക്ക് തന്നെ എന്തൊക്കെയോ ആകും പക്ഷെ ഇപ്പോഴത്തെ മക്കൾക്ക് അതില്ലാണ്ട് ആവൂല്ല അവർക്കത് മാത്രമേ ഉപയോഗിക്കുള്ളു അതിനോടാണ് ഏറ്റവും താല്പര്യം അതുകൊണ്ട് സാരിയും ഇതൊന്നും ആരും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല വെറും പിന്നെ റെഡി മെയ്ഡ് പലതരം ഡ്രെസ്സുകൾ മാത്രമാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്